ചേട്ടാ ഞാൻ ഭക്ഷണോം ഓർഡർ ചെയ്തിരുന്നു നേരത്തെ അതിലേക്ക് സോസ് കെച്ചപ്പ് സലാഡ് അങ്ങനെ എന്തെങ്കിലും കിട്ടോ അച്ചാറോ അങ്ങനെ എന്തെങ്കിലും കിട്ടോ പിന്നെ ജ്യൂസ് ഏതാ ഉള്ളത് ഓറഞ്ച് മുന്തിരി ആപ്പിള് മൊസമ്പി അങ്ങനെ ഏതെങ്കിലും ഉണ്ടോ ബട്ടറുണ്ടാവോ

ഷേക്ക് ഉണ്ടാവോ എത്രയാണ് വില വരുന്നത് ബിരിയാണി ഏതാണ് ഉള്ളത് കോഴി ബിരിയാണി ഉണ്ടോ

ബീഫ് ബിരിയാണി ഉണ്ടാവോ അതിലേതാണ് ഉള്ളത് എത്രയാണ് വില വരുന്നത് മന്തീയുണ്ടോ

കോഴി പൊരിച്ചതുണ്ടാവോ എത്രയാണ് വരുന്നത് വില വരുന്നത് ജ്യൂസിനൊക്കെ എത്രയാണ് വില വര്വാ

വില കൂടുതലാണല്ലേ എന്നാൽ ഒരു നാരങ്ങാ വെള്ളം മതി